ഹലോ ഹലോ ആ ഇതാരാ അതെയല്ലോ ഇതാരേന് ആ ആ നിങ്ങള്ക്ക് പച്ചക്കറി വേണമായിരിക്കും തക്കാളിയോ ഇരുപത് കിലോ ആ ഇപ്പോള് കിലോന് ഇപ്പോള് തക്കാളിക്ക് വില കൂടിയിട്ടുണ്ട് കേട്ടോ കിലോന് നാല്പത് രൂപ ആയിട്ടുണ്ട് ആ ഓക്കെ ആ ഒരാള് ആ ഇപ്പോള് പിന്നെ ഇരുപത് കിലോ എന്നു പറയുമ്പോള് എണ്ണൂറ് രൂപ വരും ഡിസ്കൗണ്ട് ആക്കീട്ട് തരാം ഇത് നല്ലത് ചിലപ്പോള് ഇപ്പോള് മുമ്പേ വന്നിട്ട് ഉള്ളതാണ് ചെലപ്പോ അത് മോശം ആയത് ഒന്നും തടയാ എപ്പോഴാണ് ഇത് നിശ്ചയം എപ്പാന്ന് നാളെയാ ആ അപ്പോള് വൈകുന്നേരം കൊണ്ട് പോവുമായിരിക്കും അല്ലേ അതെയോ ഇപ്പോ ഞാന് ഇപ്പോ അത് നോക്കാം ഓ അതെയോ ആദ്യം നിങ്ങള് വരുമോ അല്ല എങ്ങനെയാ ഇത് കൊണ്ടുത്തന്നാല് അതിൻ്റെ ചാർജ് തരേണ്ടിവരും വണ്ടി ചാർജുംകൂടി തരേണ്ടിവരും വരും അല്ലേ അതെ ഇപ്പോള് എണ്ണൂറ് രൂപയാണ് എഴുന്നൂറ്റമ്പത് രൂപ വരെ ഡിസ്കൗണ്ട് അതുകൊണ്ട് തന്നെ നമ്മള്ക്കും വല്യ ലാഭമില്ല അതില് നമ്മള്ക്ക് ഈ കൊണ്ടുവരുന്ന തക്കാളീന്ന് കുറേ എണ്ണം ചീഞ്ഞിട്ട് പോവാനായി അപ്പോള് നമ്മക്ക് ഈ ഒന്നിച്ച് കൊണ്ടുവരുന്നതിൽ ഇപ്പോള് നമ്മക്ക് രണ്ട് എണ്ണം പോവുമ്പോള് തന്നെ നമ്മക്ക് നഷ്ടമായില്ലേ ആ അപ്പോള് അതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുവെക്കുന്നില്ല വില ങാ അപ്പോ അതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുവെക്കുന്നില്ല വില കൂടിയത് കൊണ്ട് ആൾക്കാർ കൊണ്ട് പോകുന്നതു കുറവാണ് അല്ല അതിന് വെജിറ്റബിള് മേടിക്കുന്നുണ്ടെങ്കില് ഇവിടെ എല്ലാം സാധനവുമുണ്ട് നല്ല ഫ്രഷ് ആയ സാധനം ഉണ്ട് ഈട നിങ്ങള് ഇവിടുന്നുതന്നെ മേടിക്കുന്നുണ്ടെങ്കില് നല്ലതായിരുന്നു നമ്മള്ക്ക് കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം ആക്കീട്ട് തരാൻ പറ്റ്യട്ടിയേര്ന്നു നിങ്ങള് ഇവിടുത്തേക്ക് തന്നെ വരുന്നുണ്ടെങ്കില് ആ വരുന്നത് ഇന്നന്നെ വരുമോ വരുന്നുണ്ടെങ്കില് ആ ആയി എന്നാല് ശരി നിങ്ങള് വരുന്നതിനുമുന്പ് വിളിച്ചോളിൻ വരുമ്പോള് ഞാൻ ഇല്ലെങ്കിലോ ആ ശരി ശരി ഓക്കെ